ആ ആ ഹായ് എൻ്റെ പേര് അക്ഷയ് എന്ന് ആണ് ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത എന്താ ചെയ്യാന്ന് ഒരു പ്ലാനിംഗ് ഇല്ല അപ്പോൾ അത് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഐ ടി അങ്ങന ഐ ടി ഫീൽഡ് ആ കമ്പനീസ് വൈസ് നോക്കാൻ ആണ് പ്ലാന് ഇപ്പോൾ പത്ത് അങ്ങനെ ചെയ്യാം അല്ലേ എനിക്ക് ഇപ്പോൾ എമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉള്ളൂ അപ്പോൾ കുഴപ്പം ഇല്ലല്ലൊ അല്ലേ ഇല്ല അങ്ങനെ ഒന്നും ഇല്ല ആ വിദേശത്ത് പോകാൻ ആയിട്ട് സ്കോപ്പ് ഉണ്ടാകും അല്ലോ അല്ലേ പുറത്ത് പോയാൽ സാലറിയും കൂടുതൽ ആയിരിക്കും നിങ്ങൾക്ക് സ്കോപ്പ് ഒക്കെ ഉണ്ടാകും അല്ലോ അല്ലെ ആ ഐ ടി എടുക്കണോ പഠിക്കണത് വേണേൽ കേരളത്തിൽ നിന്ന് പഠിച്ചിട്ട് പ്ലേസ്മെൻറ്റിന് പുറത്ത് തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ആണ് രണ്ടും അത് ആണ് ഇവിടെ ഉള്ള ഏട്ടൻമാരിക്ക് ആ കോയമ്പത്തൂര് ആ ഭാഗത്ത് പക്ഷെ ബാംഗ്ലൂരാണ് പോകുന്നത് പിന്നെ അവിടെ സീറ്റിൻ്റെ കാര്യത്തില് കുറച്ച് ബുദ്ധിമുട്ട് ആയത് കൊണ്ട് ആണ് ഞാൻ ആളുകൾ ഉണ്ട് അതെ അങ്ങനെ ചെയ്താൽ മതി ഇല്ലേ ബാക്കി ഇതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പുറത്ത് ഇല്ലേ ആ എന്തായാലും എനിക്ക് പുറത്ത് പോവാൻ ജോലി ചെയ്യാൻ പുറത്ത് പോകണമെന്ന് തന്നെയാ താൽപ്പര്യം പക്ഷെ ഇവിടെ നിന്നിട്ട് ഒന്നും വലിയ കാര്യം ഉണ്ടാകും തോന്നണില്ല അല്ലേ അത് ആണ് ഇപ്പോൾ അത് ഇപ്പം നോക്ക് ആ എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം അല്ലേ കോമേഴ്സ് ഒന്നും കോമേഴ്സ് എടുക്കും കോമേഴ്സ് വേണ്ട അല്ലേ അതായത് ഇപ്പോൾ ഇവിടെ ഇത് ആണ് ഓക്കെ ഞാൻ എന്തായാലും വീട്ടില് പോയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ആ വിളിച്ചാൽ മതി അല്ലേ ഓക്കെ